ഞങ്ങൾ സകുടുംബം കുടുംബമായിട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പഷേ ഞാൻ പോകാൻ ആഗ്രഹിച്ച അന്ന് ചെക്ക് ചെയ്തപ്പോൾ പാസ്പോർട്ടിൽ എല്ലാവരുടെയും എല്ലാവരുടെയും ഡേറ്റ് മാറി പിന്നെ തീർന്നു കഴിഞ്ഞു ഉടനെ തന്നെ പാസ്പോർട്ട് പുതുക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് ഒന്ന് പറഞ്ഞ് തരാമോ എനിക്ക് അത്യാവശ്യമായിട്ടും പുറത്ത് പോവേണ്ടത് ആയിട്ടുണ്ട് ഫാമിലി ആയിട്ട് തന്നെ പോകുകയും വേണം അവരുടെയെല്ലാം പാസ്പോർട്ട് ശരിയാക്കി തരികയും വേണം